എനിക്ക് ഞാൻ എന്തു നട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുണ്ടായി കാണുന്നത് ഇപ്പം ഒരു കമ്പ് ഒരാൾ തന്നു വിചാരിച്ചോ അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്ന് വീട്ടീൽ ഇങ്ങനെ ചുമ്മാ കുത്തിവയ്ക്കുന്നു